ആ ഞങ്ങളുടെ നാട്ടിൽ ഒരു ടൂറിസ്റ്റ് വന്നാൽ കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഞങ്ങള്ക്ക് ആ വരുന്ന ടൂറിസ്റ്റിന് ഞങ്ങളുടെ സ്ഥലങ്ങളെപ്പറ്റിയുള്ള സ്ഥലങ്ങളുടെ തന്നെ ഏറ്റവും കാണാന് നല്ലതായ സ്ഥലങ്ങളെപ്പറ്റി അവരോട് പറയും എന്നിട്ട് അവര്ക്കതിലേതാണോ കാണാന് ഇഷ്ടം വരുന്നത് ആ ഇഷ്ടമുള്ള സ്ഥലം ഞങ്ങളവരെ കൊണ്ടുപോയി കാണിക്കും ഞങ്ങളുടെ നാട്ടില് പിന്നെ കൊല്ലം ജില്ലയാണ് ഞങ്ങൾ കൊല്ലത്ത് പിന്നെ ആ മണ്രോത്തുരുത്തുണ്ട് അത് തുരുത്തുകളാണ് അവിടെ കൊണ്ടുപോയാല് ഞങ്ങളവരോട് പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ കൊല്ലത്ത് മണ്രോത്തുരുത്തുണ്ട് അവിടെ ബോട്ടിലൂടെ സഞ്ചരിക്കാം അവിടെ കൊച്ചു കൊച്ചു തുരുത്തുകളുണ്ട് അപ്പം അവിടെ ഒരു ദിവസം മൊത്തം ചിലവഴിക്കത്തക്ക രീതിയില് ഉള്ള ഒരു സ്ഥലമാണ് മണ്രോത്തുരുത്ത് അതവിടെ കൊണ്ടുപോയി കാണിക്കും ഞങ്ങൾ പിന്നെ ഞങ്ങള്ക്ക് ഇവിടെ അനേകം സ്ഥലങ്ങളുണ്ട് ഞങ്ങള്ക്കിവിടെ കാണാനായിട്ട് കുളത്തൂപ്പുഴ മീന് വളര്ത്തല് ഒരു ക്ഷേത്ത്രത്തിന്റെ അമ്പലത്തില് ഒരു കുളമുണ്ട് അവിടെ നമ്മുടെ മനുഷ്യരുടെ അത്രയും ഉള്ള മീനുവകളുണ്ട് അവിടെയുള്ള മീനിനെ ഒന്നും ആരും പിടിക്കാറില്ല അതിന് ഭക്ഷണമൊക്കെ ഇട്ടു കൊടുത്ത് നമ്മളിതിനെ അതിന്റെ അകത്തോട്ട് കൈ കയ്യിൽ പൊരിക്കടലെയെക്കെ വച്ച് കൊടുക്കുമ്പം അതിനകത്ത് വന്ന് ഈ മീന് നമ്മുടെ കയ്യില് വന്ന് തിന്നിട്ട് പോകും കാരണം അവര്ക്കൊരു പേടിയുമില്ല മീൻ മീൻ നമ്മുടെ കയ്യില് വന്ന് കാരണം അവര്ക്ക് ആ മീനിനറിയാം നമ്മളതിനെ പിടിക്കത്തില്ലെന്ന് അപ്പം അതൊക്കെ ഞങ്ങൾ ടൂറിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കും അതൊക്കെ അവര്ക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ കൈവെള്ളയിൽ വന്ന് നല്ല വലിയ മീനുകളൊക്കെ വന്ന് പിന്നെ പൊരിക്കടലയും അതിന്റെ ഫുഡ് വന്ന് തിന്നിട്ട് പോവുമ്പം വരുന്നവര്ക്കൊരു നല്ല സന്തോഷമല്ലേ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും പിന്നെ ബഫല്ലോ ഫാമുണ്ട് ബഫല്ലോ ഫാമല്ല കന്നുകാലികളുടെ ഒരു ഫാമുണ്ട് കുളത്തൂപ്പുഴയിൽത്തന്നെ അതും കേന്ദ്ര ഗവണ്മെന്റിന്റെ അധീനതിയിലുള്ളതാണ് പിന്നെ പുനലൂർ പോയാൽ തൂക്കുപാലം പിന്നെ വഫല്ലോ ഫാമുകളുണ്ട് പിന്നെ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാന് പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന സ്ഥലങ്ങളുണ്ട് ഇന്നതൊക്കെ കാണാനുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് വരുന്നവരെ ഞങ്ങളുടെ കൊല്ലം ജില്ലയില് തന്നെയുള്ള തേന്മല ഡാമ് കൊണ്ടുകാണിക്കും ആ ഡാമിന്റെ പ്രത്യേകതകളെപ്പറ്റി അവരോട് പറഞ്ഞു കൊടുക്കും അവര്ക്ക് അതിഷ്ടപ്പെടുകയാണെങ്കില് അവരെ അത് കാണാനുള്ള വിവരങ്ങള് അവര്ക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ പാലരുവിയെപ്പറ്റി പറഞ്ഞു കൊടുക്കും അപ്പം ഏത് മേഖലയിലോട്ട് പോയാലാണോ കൂടുതൽ കാണാനുള്ളത് അതിനെപ്പറ്റിയൊക്കെ ടൂറിസ്റ്റുകള്ക്ക് വിവരിച്ച് കൊടുക്കും വിവരിച്ച് കൊടുക്കുമ്പം അവര്ക്കിഷ്ടപ്പെടുന്നത് അവര്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില് തന്നെ പറഞ്ഞു കൊടുക്കാന് ശ്രമിക്കും അങ്ങനെ ടൂറിസ്റ്റുകളെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് ഗുഹാക്ഷേത്രം കേവാണ് കേവ് ടെമ്പിള് എന്നാണ് അവിടെ അമ്പലമാണ് പണ്ട് അവിടെ ഈ യുദ്ധകാലഘട്ടത്തില് ഈ പാറ തുളച്ച് പാറയ്ക്കകത്ത് കയറി ആള്ക്കാർ ഒളിച്ചിരുന്ന സ്ഥലമാണ് ഒരു പാറയിലാണ് അത് കുറേ കുറേ അറകളുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പം ജീവിക്കുന്ന സ്ഥലത്തുനിന്നും ഒരു കിലോമീറ്ററെ ഉള്ളൂ ഈ കേവിള് ടെമ്പിളിലേക്ക് പോവാനായിട്ട് അത് വലിയൊരു പാറയാണ് പാറ തുരന്ന് അതിനകത്ത് മുറികളാണ് കൊച്ചു കൊച്ചു മുറികളുണ്ട് അവിടെ പണ്ട് ആള്ക്കാർ വന്ന് ഒളിച്ചിരുന്നതാണ് അപ്പം അത് കാണാന് നല്ല ഭംഗിയാണ് അപ്പം ഒരു പാറയ്ക്കകത്തുള്ള റൂമുകൾ കുറേ റൂമുകൾ ഇപ്പം അത് ഒരു ടെമ്പിളാണ് ഒരമ്പലമാണ് അവിടിപ്പം പൂജയും പൂജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ പാറയ്ക്കുള്ളില് തന്നെയാണ് അവർ ഈ ടെമ്പിൾ ഒരുക്കിയിരിക്കുന്നത് അമ്പലത്തിന്റെ എല്ലാം പൂജകളൊരുക്കിയിരിക്കുന്നത് അവിടെ വര്ഷംതോറും ഉത്സവം നടക്കാറുണ്ട് നല്ല നല്ല ഒരു സ്ഥലമാണ് ഈ ഈ ഗുഹാക്ഷേത്രം ആ അങ്ങനെ ഞങ്ങളുടെ പ്രദേശമെന്ന് പറയുന്നത് മലയോര ഗ്രാമമാണ് കേരളത്തിന്റെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് കടലും കടലും കായലും മലയും നിറഞ്ഞൊരു സ്ഥലമാണ് പിന്നെ കൊല്ലം പട്ടണത്തിലേക്ക് പോയാല് അവിടെ കായലുണ്ട് അഷ്ടമുടിക്കായൽ കായലുണ്ട് പിന്നെ കടലുണ്ട് കടലുണ്ട് പിന്നെ ഞങ്ങളെ പല അഞ്ചല് ഇങ്ങനെ ഈ മേഖലയിലോട്ട് വന്നു കഴിയുമ്പോൾ അഞ്ചൽ ആര്യന്കാവ് കൊല്ലം ജില്ലയുടെ ആ കിഴക്കന് മേഖലയിലോട്ട് വന്നു കഴിയുമ്പം മലയോരപ്രദേശമാണ് അപ്പം ഈ എല്ലാം മൊത്തവും ഒരു ഒരു ടൂറിസ്റ്റിന് വന്നാല് കാണാന് പറ്റുന്നതായ ഒരുപാട് കാര്യങ്ങള് ഞങ്ങളുടെ കൊല്ലം ജില്ലയില് ഉണ്ട് കൊല്ലം ജില്ലയിൽ ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വരുന്ന ടൂറിസ്റ്റുകള്ക്ക് പറഞ്ഞു കൊടുക്കും അപ്പം അവര്ക്കിഷ്ടപ്പെടുന്ന ഏതാണോ അപ്പം ഇഷ്ടപ്പെടുന്ന രീതിയില് പറഞ്ഞു കൊടുക്കുവാന് ഞങ്ങള് പരിശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ ഞാന് ചെയ്തു കൊടുക്കും